നമ്മുടെ മക്കൾ ഇപ്പോൾ പഠിച്ച് എല്ലാവരും ഇപ്പം നല്ല നിലയിൽ പഴയത് പോലെ അല്ല നല്ല വിദ്യാഭ്യാസത്തോടു കൂടിയാണ് എല്ലാ മക്കളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അവർ പഠിച്ച് ഇത്രയൊക്കെ പഠിച്ചിരുന്നിട്ടും അവർക്കൊരു ജോലി ഇല്ല എന്ന ഭയങ്കര ഒരു സങ്കടകരമായ കാര്യമാണ് അത് മക്കൾ എത്രയൊക്കെ പഠിച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ജോലി ഇല്ലാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ് മക്കൾക്ക് ഇപ്പം പഠിക്കാനേ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ജോലി ജോലി കിട്ടുന്ന പഠിത്തം മതി അല്ലാതെ ഡിഗ്രി ഒന്നും പഠിച്ചിട്ടൊരു കാര്യവും ഇല്ല എന്തെങ്കിലും പഠിച്ചിറങ്ങിയാലുടനെ ജോലി കിട്ടുന്ന എന്തെങ്കിലും ഇതാണ് പഠിക്കാനാണിപ്പം പിള്ളേർക്ക് താല്പര്യം അതുകൊണ്ട് ജോ പഠിച്ച് തീർന്നാലുടനെ ജോലി കിട്ടണം എന്നാണ് പിള്ളേരുടെ ആഗ്രഹം